ഹലോ ഇത് ക്വിക്ക് ട്രിപ്പ് സർവീസല്ലേ ആ ഞാനിത് അങ്കമാലീന്ന് വിളിക്കാണ് എനിക്ക് എൻ്റെ അച്ഛനെ അമ്മയൊന്ന് ആലപ്പുഴേന്ന് വിളിച്ചോണ്ട് വരാനുണ്ട് അവർ രണ്ട് പേരും പ്രായം ആയവരാണ് അപ്പം അവർക്ക് ഇങ്ങോട്ട് അങ്കമാലീലേക്ക് വരാൻ വേണ്ടീട്ട് ഒരു ടാക്സി വിടണം അപ്പം ടാക്സി ഡ്രൈവറ് ഒന്ന് രണ്ട് പേരും പ്രായായിട്ടുള്ളവരാണപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നതും സേഫായിട്ട് കൊണ്ടുവരുന്ന റോഡ്സിലെ കൂടെ കൊണ്ടൊരുന്നയാളെ വേണം വിടാനായിട്ടേ അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് നോക്കിക്കോണം അവർ അവിടെ കോൺടാക്ട ചെയ്യാനായിട്ട് ഞാൻ അച്ഛൻ്റെ നമ്പറ് തന്നേക്കാം അപ്പം നിങ്ങളെപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യണ്ട ദിവസമെന്ന് പറയുന്നത് വരുന്ന വെള്ളിയാഴ്ചയാണ് ഓക്കെ വെള്ളിയാഴ്ച അപ്പം രാവിലെ നിങ്ങളെപ്പോൾ അവിടെ ചെല്ലും എത്ര മണിക്കവർ റെഡിയായി നിക്കണമെന്നുള്ളത് നിങ്ങൾ അച്ഛനെ വിളിച്ചിട്ട് സംസാരിച്ച് പറഞ്ഞാൽ മതി തിരിച്ച് അവരെ ഇങ്ങോട്ട് കൊണ്ട് വരുമ്പം നിങ്ങൾ അങ്കമാലിക്ക് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് വഴി പറഞ്ഞെരാ എൻ്റെ വീട്ടിലേക്ക് വരാനായിട്ടേ അപ്പം ആ വഴി ഞാനപ്പോൾ പറഞ്ഞ് തന്നോളാം അപ്പോൾ ആ അതൊന്ന് റെഡിയാക്കാ അറേഞ്ച് ചെയ്യുക വരുന്ന വെള്ളിയാഴ്ച ഇരുപത്തെട്ടാന്തീയാണ് അവരിങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് രാവിലെ ഒരു എപ്പോഴാണ് നിങ്ങൾക്ക് സൗകര്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വിളിച്ച് പറഞ്ഞാൽ മതി നിങ്ങൾ പിക്ക് ചെയ്യുന്ന ടൈമൊന്ന് അച്ഛനോട് വിളിച്ച് പറഞ്ഞാൽ മതീട്ടോ പിന്നെ വൈകുന്നേരം തിരിച്ചിങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി എത്താറാവുമ്പത്തേക്കൊരു ആലുവയൊക്കെ കഴിയുമ്പോൾ എന്നൊന്ന് വിളിച്ചാൽ മതി ഞാൻ വഴി പറഞ്ഞെരാ പിന്നെ നിങ്ങടിപ്പം അതുപോലെ ചാർജെത്രയാകും ഇതിന് അവിടുന്നിങ്ങോട്ടിവിടെ എത്താൻ എത്തി കഴിയുമ്പം എത്ര ഏകദേശം ചാർജാവുന്നൊന്ന് അറിഞ്ഞിരിക്കാനായിട്ടായിരുന്നെനിക്ക് ശരി അപ്പം താങ്ക് യൂ എന്തേലും സംശയമുണ്ടേൽ എന്നെ വിളിച്ചോളൂട്ടാ താങ്ക് യൂ